കേരളത്തിൽ ഇപ്പം പറയുകയാണെങ്കിൽ ഫുട്ബോളും ക്രിക്കറ്റും പിന്നെ കുട്ടികൾ ഇവിടെ നിന്ന് കളിച്ച് വലിയ ടീമായി കേരത്തിൽനിന്ന് പുറത്തുപോകുന്ന ഒരു സന്ദർഭമാണിപ്പം ക്രിക്കറ്റ് എന്നു പറയുന്നെങ്കിൽ എല്ലാവർക്കും അറിയാം കുട്ടികളൊക്കെ ഇവിടെനിന്ന് കളിച്ച് ഒരു ടീമാക്കി കേരളത്തിൻ്റെ പുറത്തുപോയി കളിക്കുന്ന ഒരവസരങ്ങളാണ് ക്രിക്കറ്റും ഫുട്ബോളും